ഇന്ന് ആളുകൾ വളരെയധികം പാഷനോടുകൂടെയാണ് ബൈക്ക് യാത്രയെ കാണാറുള്ളത് കാരണം ഇതിൽ നിന്ന് ഒട്ടനവധി സംതൃപ്തികളും അതുപോലെ തന്നെ സുഖാ ങ്ങളും കണ്ടെത്തുന്നവരുണ്ട് എന്നുള്ളതു പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഏറ്റവും വേഗതയിൽ ആരാണ് വാഹനം ഓടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ മുകളിലിരുന്ന് സർക്കസുകൾ കളിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണു സാധിക്കുക അതുപോലെ വളരെ ഉന്മേഷിതനായിട്ട് എനർജിയോടു കൂടെ എത്രയോ കിലോ മീറ്ററുകളോളം വാഹനം ഓടിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ ആനന്ദകരമാണ് അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരുമൊത്തു യാത്ര നടത്തുമ്പോള് തന്നോടൊപ്പമുള്ള മറ്റു യാത്രക്കാരോടു കുശലം പറയുക യാത്ര ചെയ്യുമ്പോള്ത്തന്നെ അവരോടു കുശലം പറയുക പിന്നെ അവർക്കു ചില ആംഗ്യഭാഷകളിലൂടെ കാണിച്ചുകൊടുക്കുക എന്നുള്ളതു വളരെ ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മത്സരം നടത്തുന്നതു മറ്റൊരു ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് അപകടങ്ങൾ വരുത്തുന്നതു വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രഥമമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെത്തന്നെ വേഗതയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പലരും ഇന്നും ഒരു പാഷനാക്കി എടുക്കുന്നതാണ് പലപ്പോഴും പല ജീവനുകളും പൊലിയുന്നത് വേഗതയിലുണ്ടാകുന്ന വീഴ്ചകളും അബോധമായിട്ടുള്ള അവസ്ഥകളുമാണ് എന്നുള്ളതു പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എങ്കിലും ഇന്നും ഒരുപാട് ആളുകൾ വളരെ സുന്ദരമായിട്ടുള്ള വിനോദസഞ്ചാര ഇടങ്ങളിലേക്ക് ബൈക്ക് യാത്ര നടത്തുന്നത് ആ പ്രകൃതിയുടെ ഭംഗി അതിൻ്റെ ആകാരത്തെ കൃത്യമായിട്ടു തൊട്ടു സ്പർശിക്കാൻ വേണ്ടിയിട്ടാണ്